ഹലോ ഗുഡ് മോർണിംഗ് ഇത് സാംസങി സാംസങ് ഫോണിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്നാണ് താങ്കളെന്താണ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ മറ്റേ എ ഫോർട്ടീനോ ആ സാംസങിൻ്റെ എ ഫോർട്ടീൻ ഇന്നലെ രാ രാവിലെ കൊണ്ട് വന്നത് ആ ഓക്കെ ബാ ആ ബാറ്റ് ട് അതുതന്നെ ആ ബാറ്ററി നിലവിൽ പോയിന് ആ ബാറ്ററീന് നമുക്ക് ചേഞ്ച് ആക്കി ഇടേണ്ടി വരും ഈട പുതിയത് തന്നെ എടുക്കേണ്ടി വരും കാരണം എന്താണ് തട്ടാ അതങ്ങനെ മൊ എത്ര വർഷമായി ഈ ഫോൺ വാങ്ങിയിട്ട് ഓ അതുകൊണ്ട് തന്നെയായിരിക്കാം ബാറ്ററി ഇത് ഈ ഞാട്ടി മുമ്പ് എന്തും ഈ ഞാട്ടി പിന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോളല്ലെ ആ ഈ അടുക്കാണ് ഇപ്പം കംപ്ലൈന്റ് ഉണ്ടായത് അപ്പോൾ അത് നാല് വർഷം ആയില്ലേ അപ്പോൾ സ്വാഭാവികമായും ഏതൊരു ബാറ്ററീൻ്റെ കാലയളവും ചിലപ്പോൾ ഒരു വർഷം രണ്ട് വ പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ കൂടുതൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ബാറ്ററി കുറച്ച് ലോസ് ആണ് അതുകൊണ്ട് ബാറ്ററി ചേഞ്ച് ആക്കിയെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇല്ല ഇല്ല ഇല്ല ഈ ഈ ഒതാക്കിയതിൽ കാര്യമില്ല ഓക്കെ ചേഞ്ച് ആക്കണമെങ്കിൽ ഇത് ഇത് ഫൈവ് തൗസൻഡ് ആണ് ചാർജ് എൻ്റെ ഇത് അതിന് പൈസ എന്ന് പറയുന്നത് ചെ മൂവായിരം റുപ് മൂവായിരം പൈസ മൂവായിരം രൂപ ആ മൂവായിരം രൂപ അതിന് രണ്ട് വർഷം ഗ്യാരൻറി ഉണ്ട് ആ ആ ഗ്യാരൻറി അപ്പോൾ ഓക്കെ നിങ്ങൾ മറ്റന്നാൾ വന്നാൽ മതി മറ്റന്നാൾ വന്നെങ്കിൽ എല്ലാം ഞങ്ങൾ ശരിയാക്കി തരും അതൊക്കെ കിട്ടും ഓക്കെ താങ്ക് യൂ